ഹിമാലയൻ്റെ നാച്ചുറൽ ഗ്ലോ കേസർ ഫേസ് ക്രീമ് ഞാൻ വാങ്ങി ഫ്ലിപ്കാർട്ട് നിന്ന് നൂറ്റി തൊണ്ണുറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് അപ്പം ഇതിന് ഓഫറ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് അതിന് നാല് പോയിൻറ്റ് ഏഴ് റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇതില് ഗൂഗിളില് ചില ആൾക്കാരെല്ലാം നെഗറ്റീവ് പറഞ്ഞു മുഖത്ത് കുരു കൂടുന്നുണ്ട് ചൊറിച്ചില് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാ ശ്രദ്ധിച്ചില്ല നാല് പൊയിൻറ്റ് ഏഴ് അഞ്ചില് റേറ്റിംഗ് ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ അത് ഓർഡറ് കൊടുത്തു പിന്നെ ഞാൻ ആ സാധനം ഒരാഴ്ചയോളം ഉപയോഗിച്ചു ഒരാഴ്ചക്ക് ശേഷം എൻ്റെ മുഖത്ത് കുരുവും കാര്യങ്ങളൊക്കെ വന്നു കുരു കൂടി കുരു കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീമ് വാങ്ങിയത് പക്ഷേ കുരു കൂടി ഞാൻ മാത്രമല്ല എൻ്റെ ഇക്കാക്കയും ഉപയോഗിച്ചിരുന്നു കാക്കയ്ക്ക് കുരു മാത്രമെ എനിക്ക് കുരു കൂടി പിന്നെ മുഖത്ത് കുറെ ചുവപ്പ് പാടും പിന്നെ ചൊറിയൊക്കെ തുടങ്ങി ഞാൻ പിന്നെ ഞാനും ഏട്ടനും കൂടി ഹോസ്പിറ്റലിൽ പോയി തൊലി ഡോക്ടറെ കാണിച്ചു മൂപ്പര് കുറെ മരുന്നും ഓയിമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നു അയിന് കുറെ പൈസ ചെലവായി ഹിമാലയൻ്റക്കെ ബ്രാൻഡ് നെയിമക്കെ അത്രയും വലിയ നല്ല ബ്രാൻഡാണ് എന്നൊക്കെയാണ് മൊത്തത്തിൽ പറയുന്നത് പക്ഷേ അമ്മക്ക് സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കസ്റ്റമേസിനെ നല്ല പ്രൊഡക്ട് കിട്ടുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കണം എനിക്ക് ഇത്ര ചെലവായി കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ മുഖത്ത് പിന്നേയും ഇപ്പം ഏതാ വിശ്വസിച്ചിട്ട് ഏതാ ഫേസ് ക്രീം മ് വാങ്ങുകാണ് കൂടി എനിക്ക് അറിയില്ല ഏത് കമ്പനീൻ്റെ ആയാലും നൂറ്റൻപത് രൂപ ഓഫറ് കണ്ടപ്പോൾ വാങ്ങിയതാണ് പക്ഷേ മുഖത്ത് ഇങ്ങനെ വന്നു ഇനി ഇവര് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരൊ എക്സ്പീരിയൻസ് എനിക്ക് ജീവിതത്തില് ആദ്യായിട്ടാണ് ഫേസ് ക്രീമ് വാങ്ങിയിട്ട് ഇത്ര നല്ല റേറ്റിംഗുള്ള ഫേസ് ക്രീമ് വാങ്ങിയിട്ടും ഇതെപോലെ മുഖത്ത് കുറെ കുരൂം ചൊറിച്ചിലും കാര്യങ്ങളുമൊക്കെ വന്നത് ആദ്യമായിട്ടാണ്